ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്നു പറയുന്നത് നമ്മൾ കഠിനമായിട്ടു അധ്വാനിച്ചാൽ നമുക്ക് അതിനുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കും കാരണം ഞാൻ എന്റെ എസ് എസ് എൽ സിയിൽ ആദ്യ സമയത്തൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് എൻറ്റെ അധ്യാപകരൊക്കെ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടങ്കിൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് തുടർന്നുള്ള പഠനങ്ങളിൽ ലഭിക്കുമെന്ന് എൻറ്റെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തു ചെയ്തു പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ എൻറ്റെ എസ് എസ് എൽസിയിലുള്ള പാഠഭാഗങ്ങൾ നന്നായിട്ടു കറക്റ്റായിട്ട് നന്നായിട്ട് അധ്വാനിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട്തന്നെ ആ പഠിച്ചതിനുള്ള റിസൾട്ട് എനിക്ക് എൻറ്റെ എസ് എസ് എൽ സി റിസൾട്ട് വന്ന സമയത്തു കിട്ടി കാരണം എനിക്ക് എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് ആയിരുന്നു ഒരുപക്ഷേ ഞാൻ അധ്വാനിക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പഠിക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ റിസൾട്ട് കിട്ടില്ല അതുകൊണ്ട്തന്നെ ജീവിതത്തിൽ ഒരുകാര്യം പഠിച്ചതെന്താന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ മനസ്സിലുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾക്ക് ചുറ്റും ഒരുപാട് പേര് നമ്മളെ തളർത്താൻ ഉണ്ടാവും പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളുടെ സ്വപ്നം എന്താണോ അത് നമ്മളുടെ ലക്ഷ്യം എന്താണോ അതിനുപുറകെ നമ്മളോടുക ആ വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാവും പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾക്ക് ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കഠിനമായി അധ്വാനിക്കുക ആൽക്കെമിസ്റ്റിൽ പറഞ്ഞതു പോലെ തന്നെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി നമ്മള് നൂറു ശതമാനവും നമ്മളതിനകത്ത് ഡെഡിക്കേഷനോട് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും അപ്പോൾ എൻറ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്തെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കഠിനമായി അധ്വാനിച്ചാൽ അതിനുള്ള ഫലം നമുക്ക് എന്തായാലും കിട്ടും